ജീവിതത്തിൻ്റെ ഘടകത്തിലൊന്നാണ് എൻ്റെ ജോലി ഞാൻ ജോലി ചെയ്യുന്നത് ഒരു സേവനമാണ് അതായത് പഞ്ചായത്ത് മെമ്പറെന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് സേവനം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി ആ ജോലിയോടൊപ്പം തന്നെ ഞാന് പാട്ടു പാടും പാടുന്ന പാട്ട് പള്ളി പള്ളിയിലാണേലും അല്ലെങ്കിൽ ഏതെങ്കിലും വേദികളിലാണെങ്കിലും പാടാനായിട്ട് പഞ്ചായത്ത് തലത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ പാട്ടു പാടാണമെന്നുണ്ടെങ്കിൽ പാട്ടുപാടാനായിട്ടും എനിക്ക് മനസ്സാണ് അതൊക്കെ എനിക്ക് ഒരു എൻ്റെ എൻ്റെയൊരു എജ്യു എൻറ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ് ഈ പാട്ടുപാടുക എന്നുള്ളത് ഞാനത് പാടുകയും ചെയ്യും കാരണം നമ്മുടെ പഞ്ചായത്തിൽ പല പല രീതിയിലുള്ള ഏതെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ചു പേരായിരിക്കും മുന്നിൽ പാട്ടുപാടുന്നെ അതിൻ്റെ ഒപ്പം പാട്ടുപാടാന് ഞാനും അവരുടെ ഒപ്പമുണ്ടാകുന്നത് ഉണ്ടാകും പിന്നെ എൻ്റെ സേവന രംഗത്ത് ഞാന് പല എൻ്റെ വാർഡ് മെമ്പറായതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരിയേറെ ജോലിയുണ്ട് ആ ജോലിയോടൊപ്പം തന്നെ ഇപ്പോള് വീട്ടിലാണെങ്കിലും അല്ലെങ്കില് പോകുന്ന വഴിയാണേല് എനിക്കിഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ ഞാനത് മനസ്സിലെപ്പോഴും ആ പാട്ടിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നൊരു പ്രകൃതക്കാരിയാണ് തീർച്ചയായിട്ടും പാട്ട് എൻ്റെ ജീവിതമായത് ജീവിതത്തിന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പാട്ട് എനിക്ക് സങ്കടം വരുമ്പോഴത്തേക്കും സന്തോഷം വരുമ്പോഴത്തേക്കും ഞാൻ പാട്ടു പാടാറുണ്ട്